ഹലോ ആ അതേലോ ആ ഓക്കെ ആ ആ

ആ അത് തന്നെ അത് തന്നെയാണ് ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടായിരുന്നോ ആ ഓക്കെ പറഞ്ഞോളൂ എന്താണറിയേണ്ടത് ആ ഓക്കെ ആ നമുക്കിവിടെ പല തരത്തിലുള്ള തെങ്ങും തൈകളായി നമുക്കുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമുക്കാവശ്യം പറയുന്നതനുസരിച്ച് നമ്മൾ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതാണ് ഇന്ത്യയിൽ എവിടാണെങ്കിലും നമ്മൾ കൊണ്ടെത്തിച്ച് കൊടുക്കും ഇപ്പോൾ ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴ്ത്തേനും ഇതിങ്ങനെ മുളച്ച് തുടങ്ങും പിന്നെ ആ ഒരു മൊത്തം ഈ തേങ്ങ കിട്ടാൻ തുടങ്ങാനായിട്ടൊരു ഒരു അഞ്ച് തൊട്ട് പത്ത് വർഷം അതിൻ്റെടക്കാണ് ആ സമയത്തിലെ തേങ്ങ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത്രയും നാളെടുക്കും അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മൾ നോക്കുന്ന പോലെയിരിക്കും വളം ഇട്ടുകൊടുക്കുന്നതും മണ്ണ് നോക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുവെച്ചിരിക്കും ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അപ്പം മീൻസ് ഇവിടെ കുറെ മീൻസ് നമ്മൾ വളവൊക്കെ കൊടുക്കുന്നതൊക്കെയാണ്

ആ ഓക്കെ ആ ആ ഇങ്ങോട്ട് വരാൻ നോ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഓക്കെ ആ കേരളത്തിലാണെങ്കിലിവിടെ മീൻസ് നമ്മളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം ഇവിടെ കാണാനായിട്ട് കുറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ഇപ്പം മീൻസ് ആലപ്പുഴയാണെങ്കിലും നിങ്ങൾക്ക് കടൽ കാണാനും വെള്ളം കാണാനും ഹൗസ് ബോട്ടിക്കൂടെ യാത്ര ചെയ്യാനും അതിനൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ആലപ്പുഴയിൽ പോയാൽ സാധിക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴ്ത്തേനും കുമരകവും അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് വരുമ്പോഴ്ത്തേനും കോഴിക്കോട് നമുക്ക് ഒത്തിരി ആഹാരങ്ങൾ മീൻസ് ആ രുചിച്ച് നോക്കാനും ഒക്കെ ഒത്തിരി ആഹാരങ്ങളവിടെ ഉണ്ട് അപ്പം അതിന് കോഴിക്കോട് പോയാൽ പറ്റും പിന്നെ വയനാടാണെങ്കിലും കുന്നുകളും തണുപ്പ് അതിനൊക്കെ വയനാടും ഇടുക്കീം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഇതൊക്കെ ടൂറിസ്റ്റുകളൊത്തിരി മീൻസ് കേരളത്തിൽ വന്ന് പോവാനാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ടതാണിതൊക്കെ ഇതുപോലെ വേറേതെങ്കിലും സ്ഥലം മീൻസ് മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ വേറേതെങ്കിലും സ്ഥലങ്ങളെ പറ്റി അറിയാനുണ്ടോ ആ മൂന്നാറും മൂന്നാറും നല്ല തണുപ്പുള്ള സ്ഥലമാണ് നമ്മളൊരു ജൂൺ ആ ഒക്ടോബറ് ഈ സമയത്ത് വരുന്നതാണ് നല്ലത് മഴയൊക്കെയുള്ള സമയമാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും കോട കയറുന്നതുമൊക്കെ കാണാനുമൊക്കെ സാധിക്കും പിന്നെ മീൻസ് ട്രക്കിങ്ങിന് പോകാനുള്ളതുണ്ട് പിന്നെ മൃഗങ്ങളെ കാണാനും മാനൊക്കെ പോകുന്നതും അതൊക്കെ കാണാനൊക്കെ മൂന്നാറിലാണ് വരാനാഗ്രഹിക്കുന്നതെങ്കിൽ ജൂൺ ഒക്ടോബർ സമയത്ത് വരുന്നതാണ് നല്ലത് ഓക്കെ അല്ല വേറെന്തേലും അറിയാനുണ്ടോ ആ ഓക്കെ ശരിയെന്നാൽ